ആ ഓക്കെ പ്രൊഡക്ട് ഇപ്പോൾ എടുത്തിട്ട് വരാം ആ ഇതാണ് പ്രോഡക്ട് ആ ഓക്കെ ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്

ആ ഒന്നാമത്തേത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്ത സെയിം കളറ് വന്നിട്ടില്ല ആ ആ പിന്നെ അതിനകത്ത് ഡാമേജ് സൈഡിലൊക്കെ പോറൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വാച്ച് ഓടുന്നില്ല ഇടയ്ക്ക് മാത്രം വർക്കിങ്ങ് ആവും ഇടയ്ക്ക് വർക്കിങ്ങ് ആവില്ല

ആ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ക്യാഷ് റിട്ടേൺ ഓപ്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ആണോ വരിക അതോ ഇതേ കൂട്ടൊരു സാധനം തന്നെ ആയിരിക്കുമോ വരിക എന്തായിരിക്കും

ഇല്ല അതിനകത്തു നിന്ന് ഒന്നും മിസ്സായിട്ടില്ല ആ ഇപ്പം നമ്മൾക്ക് ഈ ആ ക്യാഷിന് പകരം വേറെ പ്രോഡക്ട് എടുത്തുകൂടെ ആ ഓക്കെ ആ ഇതിപ്പോൾ നമ്മൾക്ക് ക്യാഷ് റീഫണ്ട് ആവുമ്പോൾ ഡെലിവറി ചാർജും കൂടി വരുമോ തരുമോ ആ വന്നിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ആ ആയിക്കോട്ടെ ആ ഓക്കെ